ഞാൻ ഈ കൃഷിൻ്റെ സംഗതിയിൽ പറഞ്ഞാൽ കോവക്കൻ്റെ കോവക്കേനെ എല്ലാം നട്ടിട്ട് നല്ല കൃഷിയാക്കുന്നുണ്ട് പിന്നെ കോവക്കൻ്റെ കൃഷിയിൽ നല്ല വളം ഇട്ടിട്ട് ചാണകപ്പൊടി വെണ്ണീറെല്ലാം ഇട്ടിട്ട് കോവക്കൻ്റെ ഇതാക്കിയിട്ട് കോവക്ക നല്ലോണം പറിച്ച് കൊണ്ടോ ഇപ്പോൾ പിന്നെ സീനിയ സീനിയ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫുള്ള് നല്ല നട്ടിട്ട് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു സീനിയ പൂ സീനിയ ഒരു നല്ല രസമുള്ള ഇത് പൂക്കൾ ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് നല്ല കൊടുക്കുവാനും എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പിന്നെ പൂജൻ്റെ സമയത്ത് നല്ല കൃഷി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കടകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടപ്പൂ സീനിയ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പൂവിനു പറ്റിയ ഒരു നല്ല ഞങ്ങക്കതിൽ ഇൻട്രെസ്റ്റ് ഉണ്ട് അതിനു പറ്റിയ പണിയെടുക്കാൻ നല്ല ഇൻ്ററസ്റ്റ് എനിക്കാണ് പിന്നെ അതല്ലാതെ മാവ് മാവിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് നല്ല പൂ മാവ് എല്ലാം നല്ല വന്നിട്ടുണ്ട് മാവ് ചെടികൾ ഇതിപ്പോൾ പൂവെല്ലാം ആയിട്ട് നല്ലോണം പൂവ് ആയിട്ടുണ്ടായി ഇപ്രാവശ്യം ഞങ്ങളെ മാവിൽ പൂവായിട്ട് പൊടിച്ചു വരുന്നുണ്ട് പിന്നെ എൻ്റെ ഓഫീസിൽ ഞാൻ പൂക്കൾ വച്ചിട്ട് ഇപ്പോൾ എല്ലാ പൂക്കൾ ചെടികൾ കടലാസ് പൂ പിന്നെ സീനിയ പിന്നെ ഇത് തെങ്ങിൻ്റെ ചെടികൾ പിന്നെ പൂവെല്ലാം കുറേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങക്കാർക്കെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ എൻ്റെ ഓഫീസിലും ഫുള്ള് സീനിയകളെല്ലാം നട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തോണ്ടുണ്ട് വൈകുന്നേരം ആവുമ്പോൾ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തോണ്ടുണ്ട് പിന്നെ എനിക്ക് പറഞ്ഞാൽ എല്ലാ സന്തോഷത്തിൽ ഞാൻ പൂവിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾ പിന്നെ ഇത് തെങ്ങിൻ്റെ ചെടികൾ തേങ്ങ തേങ്ങ എൻ്റെ വളപ്പിൽ ഉള്ള തെങ്ങിൻ്റെ ഈന് പ്റ്റീറ്റല്ലം ഞാന് ചേലായിട്ട് ചെയ്യുന്നുണ്ട് അതല്ലാത്ത എന്താണ് പറന്നത് ഈ ഞങ്ങളെ വീട്ടിൽ ഈ മറ്റേ ഇത് ബുഗിരിപ്പയം അതെല്ലാം ഉണ്ട് അതിനെ ഞാൻ പറച്ചിട്ട് എല്ലാവർക്കും തന്നോണ്ട് എന്നിട്ട് പിന്നെ മാവുകൾ പൂക്കുമ്പോൾ നല്ല രീതിയിൽ മാവ് പൂക്കളുകൾ ചെയ്ത് കൊണ്ടുണ്ട് പിന്നെ പ്ലാവെല്ലാം ഉണ്ട് പ്ലാവിൻ്റെ തൈകളുണ്ട് ആ തൈകളിപ്പോൾ ചെറുതായിട്ട് ആകുന്നുണ്ട് ഏതു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ സീതപ്പഴം അതിന് അത് ഉണ്ട് അതിനെ ഞാൻ ഇത് സീത ഫലത്തിൻ്റെ തൈ നട്ടിട്ടുണ്ട് നല്ല ഇതിൽ ഇതായിട്ട് വളരുന്നുണ്ട് പിന്നെ അടക്ക അടക്ക അടക്കേൻ്റെ ചെടികൾ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പൂവെല്ലാം ഇട്ടിട്ടുണ്ട് അതിലായ ഇക്കന്നെ ഞാൻ കടയിൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതാക്കുന്നു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ബുലാവി അത് എല്ലാം നട്ടിട്ട് ചേലായിട്ട് കണ്ട് പിന്നെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേരക്കൻ്റെ തൈ അതും നട്ടിട്ടുണ്ട് അത് ഏകദേശം ഒരു നല്ല ഇതിൽ വന്നിട്ടുണ്ട് പേരക്ക മാവ് ആ അതെല്ലാം ചെടികൾ വന്നിട്ടുണ്ട് പിന്നെ എന്ത് പൂക്കളിൽ നല്ല നല്ല പൂക്കൾ ഇവിടെ ഞാൻ നട്ടിട്ട് പിന്നെ നട്ടിറ്റുണ്ട് അത് അല്ലാത്ത ഇത് ഞങ്ങളെ തുളസി അതിൽ കറുപ്പു തുളസി കുറേ ചെടികൾ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അത് നട്ടാൽ കൊതുകുകളൊന്നും ഇവിടെ ആവശ്യമില്ലത്തത് വരുക ഒന്നുമില്ല നല്ല ഇതിൽ ചെടികൾ ഇട്ടാൽ കൊതുകൾ കുറവാണ് വരുന്നുള്ളത് പിന്നെ ഇതിൻ്റെ സർബത്ത് ജൂ സർബത്ത് കായി ജ്യൂസിൻ്റെ തൈകൾ പിന്നെ കൊക്കോ കൊക്കോൻ്റെ തൈ അത് നട്ടിട്ടുണ്ട് ഞാൻ കൊക്കോ ചെറിയ ഒരു സാധാരണ വലുതായിട്ടുണ്ട് അപ്പോൾ അതിൽ സർബത്ത് കായിൽ നല്ല ഇപ്പോൾ ഇത് ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട് എന്ത് സർബത്ത് കായെല്ലാം പൊടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ട് ഞങ്ങൾ അതിനെ എല്ലാവർക്കും ജ്യൂസിനു അതിനെല്ലാം കൊടുത്തിട്ട് എല്ലാം സന്തോഷത്തിൽ എല്ലാവർക്കും സന്തോഷം ആണത് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പഠിച്ചിട്ട് എല്ലാ ഓഫീസുകളിൽ സ്റ്റാഫുകൾക്ക് കൊണ്ടു പോയിട്ട് കൊടുത്തിട്ട് ആ ഇങ്ങനത്തെ ഇത് ആയിട്ട്